വ്യവസായ സംഘാടകർ വളരെയധികം വികസിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞുപോയ വർഷങ്ങളിൽ വ്യവസായ സംഘാടകർ വളരെയധികം ഇല്ലന്നേ ഉള്ളൂ എന്നാലും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ വ്യവസായ സംഘാടകർ വളരെയധികം കൂടുന്നതിന് അനുസരിച്ച് വളരേയധികം തന്നെ ഫൗണ്ടേഷൻസ് അഥവാ പിരിവുകൾ കൂടുകയും അത് യോഗ്യതയുള്ളവരിലേക്ക് തിരിഞ്ഞുമാറുകയും ചെയ്യുന്നതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നിയമങ്ങളും ടാക്സുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഉടനീളം തന്നെ വ്യവസായ സംഘാടകർ കൂടുതലാണ് അല്ലെങ്കിൽ വികസിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് സർക്കാരെങ്ങനെയാണ് സംരംഭങ്ങളെ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഫൗണ്ടൻഷൽ ഫൗണ്ടേഷൻസ് വഴി തന്നെയാണ് സർക്കാര് സംരംഭങ്ങളെ സഹായിക്കുന്നത് ഇത് വളരെയധികം യോഗ്യമായ ആൾക്കാർക്ക് ഹെൽപ്പാകുന്ന ഒരു കാര്യം തന്നെയാണ്